ഒരു നല്ല നര്ത്തകിയില് നിന്നും ഒരു മികച്ച നിര്ത്തകിയെ വേറിട്ട് നിര്ത്തുന്നത് എങ്ങനെ എന്നുള്ളതൊരു പ്രധാന കൊസ്റ്റ്യന് തന്നെയാണ് കാരണം ഒരു നല്ല നര്ത്തകീം ഒരു മികച്ച നിര്ത്തകീം ഇത് രണ്ടും രണ്ട് തലങ്ങളാണ് ആര്ക്കും ഒരു നല്ല നര്ത്തകിയാകാന് കഴിയും പക്ഷേ ഒരു നല്ല മികച്ച നിര്ത്തകിയാകുക എന്നുള്ളത് അത് കഠിനമായ അദ്ധ്വാനത്തിന്റെയും നിരന്തരമായ പ്രയത്നത്തിന്റെയും കൂടി ഫലമാണ് എന്നുള്ളത് നാം എപ്പോഴും ഓര്ക്കേണ്ടിയിരിക്കുന്നു നര് നൃത്തം എന്ന് പറയുന്ന കല അതിന്റെ എല്ലാ ഭാവത്തോടും എല്ലാ രൂപത്തോടും കൂടി അഭ്യസിച്ചെങ്കില് മാത്രമേ അതിന് ജീവനുണ്ടാവുകയുള്ളൂ കളിക്കുന്നയാള് അല്ലെങ്കില് നൃത്തം അവതരിപ്പിക്കുന്നയാള്ക്ക് ആ ആ ആ ആ പ്രവര്ത്തി പ്രവത്തിയോട് അല്ലെങ്കിൽ ആ കലാരൂപത്തോട് തികഞ്ഞ അര്പ്പണ ബോധമുണ്ടായിരിക്കണം തികഞ്ഞ അര്പ്പണ ബോധത്തോടെ അതില് ലയിച്ച് അതിന്റെ എല്ലാ ഭാവങ്ങളും ഉള്ക്കൊണ്ട് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത് ആരെ ഏത് കലയാണോ നമ്മൾ അഭ്യസിക്കുന്നത് അല്ലെങ്കില് ചെയ്യുന്നത് ആ കലയില് നമ്മള് ഇഴകി ചേരുക ആ കലയെ നമ്മള് പൂര്ണ്ണമായും ആവരണം ചെയ്യുക അപ്പോഴാണ് നമുക്ക് ഒരു മികച്ച നിര്ത്തകിയാകാന് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഞാനെപ്പോഴും ഊന്നിപ്പറയുന്നു നൃത്തം എന്ന് പറയുന്നത് ഒരു കലാ എന്നതിനുപരി കല എന്നതിനുപരി അതൊരു ജീവിതചര്യ കൂടിയാണ് മനുഷ്യന് ആധുനിക കാലം മുതല് തന്നെ നൃത്തത്തെ വളരെ വളരെ പ്രധാന്യത്തോട് കൂടി കണ്ടത് കണ്ട ഒരു കലാരൂപമാണ് മഹാദേവനായ ശിവന് പോലും നൃത്തത്തിന്റെ ആരാധ്യപുര് നൃത്തത്തിന്റ്റെം നൃത്തം ഏറ്റവും വലിയ നൃത്ത അഭ്യാസിയാണ് അദ്ദേഹത്തിന്റെ കല അദ്ദേഹത്തിന്റെ ശിവതാണ്ഡവം അതിന് ഉദാഹരണം തന്നെയാണ്